എൻ്റെ ഫോണിന് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും പറ്റിയാൽ ഞാനാദ്യം ഞാൻ തന്നെ ശ്രമിക്കും എന്താ പറ്റിയതെന്നു ഒന്ന് ആദ്യം നോക്കും എന്നിട്ട് എന്നിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ നേരെക്കൊണ്ടു പോയി കടയിൽ കൊടുക്കും കടയിൽ കൊണ്ടു പോയിക്കഴിഞ്ഞാൽ അവർക്കെന്താണ് പ്രശ്നമെന്നു പറയുമ്പം അവർ പറയില്ലേ എന്താ പ്രശ്നമെന്നു നമ്മളന്നേരം അവർ നോക്കി പറയുമ്പം തന്നെ നമ്മൾ അന്നേരം തന്നെ എല്ലാം ശരിയാക്കി തന്നെ തരാമെന്നു പറയും എന്നു തന്നെ കിട്ടുകയാണെങ്കിൽ അവർ പറയും അങ്ങനെ ശരിയാക്കി കഴിയുമ്പം നമ്മൾ ആദ്യം നമ്മൾ നിങ്ങളുടെ ഫോൺ എവിടെയെല്ലാ പ്രശ്നമുണ്ടാകുമ്പം അവർക്കൊന്നും പ്രശ്ന പരിഹാരത്തിനും നല്ല സേവന കേന്ദ്രങ്ങളുണ്ട് ഉണ്ടെന്നു പറയുമ്പം പിന്നെ പല കടകളുണ്ട് ഇപ്പം മെയിനായിട്ട് പറയുമ്പം എവിടെ നോക്കിയാലും മൊബൈൽ ഷോപ്പും ലക്റ്റോ ഷോപ്പും ആണല്ലോ ഉള്ളത് അപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പം നല്ല കടയിലായിരിക്കും കൊണ്ടേ കൊടുക്കാൻ നോക്കുന്നത് അപ്പം ഇപ്പം മെയിനായിട്ട് പറയുമ്പോൾ എല്ലായിടത്തും തന്നെ ഇപ്പം നല്ല അത്യാവശ്യം നല്ല ഷോ ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളിൽ ചെല്ലുമ്പം അവർ നല്ല ആൾക്കാരാണെന്നു നമുക്ക് ആദ്യം ചെല്ലുമ്പം അവർ നമ്മളോട് ചോദിയ്ക്കും എന്നാ പറ്റി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ അപ്പം നമ്മൾ പറയണം ഇന്ന പോലെ ചെയ്തു കൊണ്ടിരുന്നപ്പം എന്തോ പ്രശ്നം പറ്റിയതാണ് പറ്റി കഴിയുമ്പം അവർ അതിനുള്ള പരിഹാരം കണ്ടെത്തും അങ്ങനെ ആ പരിഹാരം കണ്ടെത്തുമ്പത്തെന് നമ്മൾ അവിടെ കൂടുതൽ സാധനം കൊടുത്തിട്ട് നമ്മൾ പോകും അവർ പിന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുമായിരിക്കും എന്നാൽ പ്രശ്നമെന്ന് അവർ പറഞ്ഞ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പം നമ്മൾ പറയുന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്നതിനു കിട്ടും എന്നാൽ എത്രയാകും എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ തുടങ്ങും ആ ചോദിക്കുന്ന കൂടെ ഇനി അങ്ങനെ വരമോയെന്നൊക്കെ നമുക്ക് ചോദിക്കാം ചോദിച്ചു കഴിയുമ്പോൾ തന്നെ അവർ പറയും അതിടയ്ക്കുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും